ആശുപത്രി നടത്തിപ്പിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഓരോ ഹോസ്പിറ്റലും ഡിഫറൻറ്റ് ടൈപ്പായിട്ടാണ് കാണുന്നത് നമ്മുടെ ഇപ്പോള് ഗവണ്മെൻറ്റ് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണെങ്കില് അവിടുത്തെ സ്റ്റാഫുകളുടെ അവരുടെ ആ ഒരു പരിഗണനയും ഇതൊക്കെ കുറച്ച് കുറവായിരിക്കും കാരണം അവര് സേവനം ചെയ്യുന്നുണ്ട് പക്ഷേ കാരണം നമ്മള് അങ്ങോട്ട് പൈസ കൊടുത്തല്ല നമ്മള് ചെയ്യുന്നത് പൈസ കൊടുത്ത് ചെയ്യാത്തതുകൊണ്ടു തന്നെ അവരധികം നമ്മളെ ഹെൽപ് ചെയ്യുകയോ അല്ലെങ്കില് സേവിക്കുകയൊന്നും ചെയ്യില്ല അവര് ജനറലായിട്ട് ചെയ്യും പക്ഷേ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വളരെ വളരെ നല്ലതായിരിക്കും അവര് നമ്മളെ നന്നായിട്ട് ടേക്ക് കെയര് ചെയ്യും നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്യും എല്ലാ പ്രവേശനവും ചികിത്സയൊക്കെ വളരെ സുഗമമായിരിക്കും